ഗുഡ് മോർണിംഗ് സർ ഞാൻ തോട്ടയ്ക്കാട് നിന്നാണ് വിളിക്കുന്നത് ഞാന് എൻ്റെ പേര് ജിമി ജെയിംസ് എന്നാണ് ഞാന് ഇത് വിളിക്കുന്നതിൻ്റെ കാര്യമെന്നുവച്ചാല് ഞങ്ങള് കുടുംബമായിട്ട് ഞങ്ങള് ഞങ്ങളെല്ലാംകൂടി ഫ്രണ്ട്സെല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ കുറേ നാളത്തേക്ക് അവധിക്കാലം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോള് എൻ്റെ കറൻറ്റ് കറന്റ് ബില്ലെല്ലാം ഒന്ന് ഓർഡറാക്കാൻ വേണ്ടിയിട്ട് അതായത് പൈസ കൃത്യമായിട്ട് ഞാൻ അടച്ചോ അല്ലെങ്കിൽ ഇനി എന്തുമാത്രം ഞാൻ അടയ്ക്കാനുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റൈൽസ് എനിക്ക് കൃത്യമായിട്ട് കിട്ടണം കാരണം ചില ബില്ലുകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് വേണം അതൊക്കെയൊന്ന് ഓർഡറാക്കിയിട്ട് പോവുകയാണെങ്കില് തിരിച്ചുവരുമ്പോള് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും ആ ബില്ലുകൾ ഇനി പേ ചെയ്യേണ്ട പേ പേ ചെയ്യേണ്ടവേ കൃത്യമായിട്ട് പേ ചെയ്യുവാനും എനിക്ക് സാധിക്കുമല്ലോ അതിനുവേണ്ടിയിട്ടാണ് സർ ഞാന് ഒരു കാര്യം ചോദിക്കട്ടെ ഞാന് ഈ ഒരു ആവശ്യത്തിനായിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ കൺസ്യൂമർ നമ്പര് ഞാനിപ്പോള് പറയാം ഞാന് ഏത് സെക്ഷനിലായിട്ടാണ് ഞാൻ കടന്നുവരേണ്ടത് അവിടെയുള്ള ഏത് മാഡത്തെയാണ് ഞാൻ കാണേണ്ടത് അതിനെ കുറിച്ചുള്ള ഡീറ്റൈൽസ് എനിക്ക് പറഞ്ഞുതരാമോ സാറിന് പറ്റുമെങ്കില് എൻ്റെ കൺസ്യൂമർ നമ്പറൊന്ന് എഴുതിയെടുക്കാമോ ലാസ്റ്റത്തെ നം മു മൂന്നാല് നമ്പർ മാത്രം ഞാൻ പറയാം സീറോ സീറോ സീറോ ത്രീ നയൻ വൺ ടു വൺ ഫൈവ് ഇത് എഴുതിത്തന്ന എടുത്തിട്ട് എനിക്ക് ഇതിൻ്റെ ഡീറ്റൈൽസൊന്ന് പറഞ്ഞുതരാന്വേണ്ടിയിട്ട് അങ്ങയ്ക്ക് സാധിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സാറേ അതുപോല തന്നെ എൻ്റെ വീട്ടിലിപ്പോള് കുറേ നാളായിട്ട് കുറച്ച് രണ്ടുമൂന്ന് മാസങ്ങളായിട്ട് കറണ്ട് ചാർജ് കൂടുതലായിട്ട് വരുന്നതായിട്ടെനിക്ക് തോന്നുന്നു ഇത് ഒരുപക്ഷെ ഞാന് സോളാർ സിസ്റ്റം ഇത് ഉപയോ ഉപയോഗിച്ചാല് ഇതിൻ്റെ ബില്ലിംഗ് റേറ്റ് കുറയ്ക്കാൻവേണ്ടി എനിക്ക് സാധിക്കുമോ അതോടൊപ്പം തന്നെ അല്ലെങ്കില് ഞാൻ ഉപയോഗിക്കുന്ന ബൾബുകള് സാദാ ബൾ പഴയകാലത്ത് ഉപയോഗിക്കുന്ന ബൾബുകള് രണ്ടുമൂന്നെണ്ണമുണ്ട് അത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഞാന് സാറെ സി എഫ് എൽ ലാമ്പും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ട്യൂബിലൈറ്റൊക്കെ ഉപയോഗിച്ചാല് അതിൻ്റെ നമ്മടെ വ വരുന്നേ ബിൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി എനിക്ക് സാധിക്കോ ഞാൻ നോക്കട്ട് ഞാന് അവധികാലം ചിലവഴിച്ച് കഴിയും വരുമ്പോഴത്തേക്കും അതായത് അപ്പോൾ ഉപയോഗം തീരെ കുറവായിരിക്കുമല്ലോ എന്തുമാത്രം റേറ്റാണ് വരുന്നതെന്ന് ഞാനൊന്ന് നോക്കാനും കൂടിയാണ് ഞങ്ങളിങ്ങന വി പോകുന്നത് വിദേശത്തേക്ക് പോകുന്നത് ഈ കാലയളവില് എന്തേലും കാര്യങ്ങളുണ്ടെങ്കില് എൻ്റെ നമ്പറിലേക്ക് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ വൺ സിക്സ് എയിറ്റ് ടു ഫോർ എന്നുള്ള വാട്ട്സാപ്പ് നമ്പറിലേക്ക് സാറിന് എന്തെങ്കിലും മെസ്സേജുകള് എനിക്ക് സെന്റ് ചെയ്യാൻവേണ്ടി പറ്റുമോ എന്തെങ്കിലും ആവിശ്യ അത്യാവശ്യമായിട്ട് കാര്യങ്ങള് വരുകയാണെങ്കില് അവിടെയുള്ള ബില്ലിംഗ് സിസ്റ്റത്തില് കഴിഞ്ഞ ഒരു ദിവസം ഞാന് അവിടെയുള്ള ഒരു മാഡത്തെ വിളിച്ചപ്പോള് കൃത്യമായിട്ടുള്ള ഡാറ്റകളൊന്നും എനിക്ക് പറഞ്ഞുതന്നില്ല അതുമെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടെൻ്റെ ബില്ലിംഗ് ഡേറ്റ് ബില്ലിംഗ് ഡ്യൂപ്ലിക്കേറ്റ് എനിക്ക് ബില്ലിൻ്റെ എല്ലാ എല്ലാ തര എല്ലാ ഡ്യൂപ്ലിക്ക ഞാൻ പുതിയതായിട്ട് അവിടെ വീട് വെച്ചതാണ് അപ്പോള് ആ ഡ്യൂപ്ലിക്ക ആ ആ വീട്ടിൽ താമസിച്ചത് മുതലുള്ള എല്ലാ ബില്ലുകളുടെയും ഡ്യൂപ്ലിക്കേറ്റ് എനിക്കാവശ്യമാണ് അപ്പോള് അതിനൊന്ന് സാര് സഹായിക്കണം അവിടെയുള്ള മറ്റ് അതി സെക്ഷനിൽ പെട്ട ആൾക്കാരോട് പറഞ്ഞ് എനിക്ക് എന്നെ സഹായിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു